ഹലോ കഴിഞ്ഞ ദിവസം നിങ്ങളുടെ ക്യാബ് ഞാൻ ബുക്ക് ചെയ്ത് കയറിയിട്ട് എയർപോട്ടിൽ നിന്ന് റെയിൽവേ സ്റ്റേഷൻ വരെ താമസിച്ചാണെങ്കിലും ഞാൻ ഇത്തിരി താമസിച്ചായിരുന്നു ടാക്സി ബുക്ക് ചെയ്തു പക്ഷേ കൃത്യ സമയത്ത് അവർ എന്നെ കൊണ്ട് എത്തിച്ചു ട്രാഫിക്കിന് ട്രാഫിക് ബ്ലോക്ക് ഉണ്ടായിരുന്നു പക്ഷേ ഷോർട്ട് കട്ട് ഒക്കെ ഡ്രൈവർ കൃത്യമായിട്ട് പിടിച്ചു അതിനൊരു താങ്ക് യു പറയാൻ വേണ്ടി വിളിച്ചതാണ് പിന്നെ നിങ്ങൾ നല്ല ഇടപെടലുകളായിരുന്നു കസ്റ്റമർ ഫ്രണ്ട്ലി ആയിരുന്നു അതുകൊണ്ട് ഞാൻ ഫൈവ് സ്റ്റാർ റേറ്റിങ്ങും നിങ്ങളുടെ ആപ്പിന് കൊടുത്തിട്ടുണ്ട് ഞാൻ ആദ്യമായിട്ടാണ് ക്യാബ് ഈ ഓലയിൽ ഇങ്ങനെ വിളിച്ച് ബുക്ക് ചെയ്യുന്നത് അതിൻ്റെ സർവീസ് ഭയങ്കര നന്നായിരുന്നു പിന്നെ പൈസയും ഞാൻ ടിപ്പ് കൊടുത്തിട്ട് ഡ്രൈവർ ടിപ്പും വാങ്ങിച്ചിട്ടില്ല പൈസയും കൃത്യമായിട്ട് കാണിച്ച് തന്നെയാണ് സാധാരണ ബുക്ക് ചെയ്യുമ്പോൾ ആപ്പിലൊരു പൈസ കാണിക്കും പക്ഷേ ഡ്രൈവർ ഇത്തിരി കൂടുതലാണ് ചോദിക്കാറുള്ളത് പക്ഷേ നിങ്ങൾ അത് കൃത്യമായിട്ട് ചെയ്തു അതിന് സർവിസിന് ഞാൻ ഫൈവ് സ്റ്റാറും കൊടുത്തിട്ടുണ്ട് കമൻ്റിൽ നല്ല പോസിറ്റീവ് റിവ്യൂ ആണ് ചെയ്തിരിക്കുന്നത് ഞാൻ എൻ്റെ കൂട്ടുകാരുമായിട്ട് ഈ കാര്യങ്ങൾ ഷെയർ ചെയ്ത് നിങ്ങളുടെ ആപ്പ് പിന്നെയും ഡൗൺലോഡ് ചെയ്യിച്ചിട്ടുണ്ട് കൂട്ടുകാർക്ക് മറ്റ് കമ്പനികളെക്കാളും നിങ്ങളുടെ ആപ്പ് ഞാൻ പ്രിഫർ ചെയ്യുന്നു അത് മറ്റുള്ളവരോട് പറഞ്ഞേക്കുകയും ചെയ്തേക്കാം